മലയാളം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായൊരു ഭാഷയാണ് മാതൃഭാഷയായിട്ടുള്ളത് എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു അതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്നുള്ളത് ആദ്യം തന്നെ അമ്മ അച്ഛൻ സ്നേഹം എന്നുതന്നെ ആയിരിക്കും എല്ലാ നമ്മുടെ വികാര വിചാരങ്ങളെയും വളരെ മൂല്യവത്തായിട്ട് തന്നെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹത്തരമായ ഒരു ഭാഷയാണ് മലയാളം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ പാശ്ചാത്യ രാജ്യക്കാർ ഉപയോഗിക്കുന്ന ഐ മിസ്സ് യു എന്ന വാക്ക് വളരെ മനോഹരമായി കാവ്യ ഭാവാത്മകയിൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി എന്ന് പറയുന്നത് എത്ര മനോഹരമാണല്ലേ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല പഴംചൊല്ലുകളും കടംങ്കഥകളും നമ്മൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധി ആയിട്ടാണെനിക്ക് തോന്നുന്നത്